മലയാളഭാഷയിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഹിന്ദി ഇന്ത്യയുടെ ഭാഷയായി മാറിക്കൊണ്ടിരിക്കുവാണ് ഹിന്ദിയിലുള്ള ജനങ്ങൾ ഇന്ത്യയിൽ കൂടുതലാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഹിന്ദി സംസാരിക്കുന്നത് കൊണ്ട് ഹിന്ദി ഏറ്റവും ഔദ്യോഗിക ഭാഷയായി ഇന്ത്യയിൽ മാറുകയും മറ്റുള്ള ഭാഷകൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പ്രയോഗിച്ചാൽ മാത്രമേ ആ ഭാഷയെ ഇന്ത്യയിൽ അംഗീകരമായി ഔദ്യോഗികമായി മാറുവാൻ മലയാള ഭാഷയ്ക്ക് സാധിക്കുക ഉള്ളൂ പലരും ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷയായി തമിഴ് തെലുങ്ക് കർണാടക കൊടക് എന്നീ ഭാഷകളെല്ലാം ഔദ്യോതിക ഭാഷയായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാലും അത് ഇന്ത്യയിൽ വരുവാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു ഭാഷകളാണ് പക്ഷേ ഇന്ത്യയിൽ കൂടുതൽ ഹിന്ദി ഭാഷ ഔദ്യോഗികമായി സംസാരിക്കുന്നതുകൊണ്ട് ഹിന്ദി ഭാഷയെ ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും അതിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് മേന്മയായി മാറ്റുവാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹിന്ദി ഭാഷ ഔദ്യോഗിക ഭാഷയായി ഇന്ത്യയിൽ നമ്മൾ കാണപ്പെടുന്നു അനുഭവിക്കുന്നു